ഞാൻ ഒരു തയ്യൽക്കാരിയാണ് എട്ടാം ക്ലാസ് തൊട്ടേ തയ്യൽ പഠിക്കാൻ തുടങ്ങിയതാണ് ഒമ്പതാം ക്ലാസ് ആയപ്പം തൊട്ട് ഞാൻ ഓരോരുത്തർക്ക് ചെറിയ രീതിയിൽ തയ്ക്കുമായിരുന്നു ആ പിന്നെ പ്രീഡിഗ്രി കഴിഞ്ഞും ഒരു തയ്യൽ കടയിൽ ഇരിക്കുക ചെയ്തു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ തയ്ച് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ അങ്ങനെ ഒരു വലിയൊരു കടയിൽ ഞാൻ ഇ തയ്യൽ ജോലി ചെയ്തു നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇഷ്ടം പോലെ തയ്ക്കാനും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ നല്ല രീതിയിൽ തയ്ച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് വരുന്നവർ ഇഷ്ടം പോലെ തയ്ക്കാനായിട്ട് ആളുകൾ കൊണ്ടു വരുന്നുണ്ട് അപ്പൊ ആ കടലെ അവർക്കും എന്നോടു ഇഷ്ടവാണ് അങ്ങനെ ഞാൻ തയ്ച്ച് ഇപ്പം വീട്ടിൽ സ്വന്തമായിട്ട് ഇപ്പം ഒരു കടയിട്ട് ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ കസ്റ്റമർ ണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് ചുരിദാറും ഒക്കെ ഉണ്ട് പിന്നെ ചുരിദാർ പീസ് ഞാൻ എടുത്ത് വച്ചിട്ട് അത് വരുന്നവർ കസ്റ്റമറിബൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് കൊടുത്തിട്ട് തയ്ക്കുന്നുണ്ട് തയ്ച്ചു കൊടുക്കും കൂടാതെ അല്ലാതെ തന്നെ ഞാൻ ഓരോ ബ്ലൗസും ഒക്കെ റെഡിമെയ്ഡായിട്ട് തയ്ച്ചും അതും ആൾക്കാർ വന്ന് വാങ്ങിക്കാറൂണ്ട് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കാരണം മറ്റുള്ള സ്ഥലത്തേക്കാൾ കൂടുതൽ ആളുകൾ വന്ന് മേടിക്കാൻ ഇഷ്ടമുണ്ട് പിന്നെ നന്നായിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് തയ്ക്കുന്നത് പിന്നെ എനിക്ക് ഒരു വരുമാന മാർഗവും കൂടിയാണ് ഇന്ന് ഇപ്പം എനിക്ക് മാസം ഒരു പത്തും പതിനെട്ട് രൂപയോളം തയ്ച്ചു കിട്ടാറുണ്ട് അത് എൻ്റെ ജീവിതത്തിനകത്ത് വീട്ടിൽ തന്നെ ഒരു നല്ല ഒരു തുക ആയിട്ടാണ് ഞാൻ കരുതുന്നത് എൻ്റെ മോളും നന്നായിട്ട് തയ്ക്കാനായിട്ട് എന്നെ കണ്ടത് കൊണ്ട് തയ്ക്കാറുണ്ട് ഞാനും എൻ്റെ സഹോദരിമാരും തയ്യൽക്കാരായിരുന്നു അത് കണ്ടത് കൊണ്ടാണ് എനിക്കും തയ്ക്കണമെന്നുള്ളൊരു വാസന ചെറുതിലെ മുതൽ വന്നത് ഇപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നുണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ സാരിയിലൊക്കെ സ്റ്റിച്ചിംഗ് ഇത് പേള് വയ്ക്കാനും അങ്ങനെയൊക്കെ ആൾക്കാർ വരാറുണ്ട് അതു എനിക്ക് ഒരു വരുമാന മാർഗ്ഗമാണ് പുറത്തു നിന്നുമൊക്കെ വന്ന് ആളുകൾ ചെയ്തു ചെയ്യിപ്പിച്ചു പോകാറുണ്ട് പിന്നെ എംബ്രോയ്ഡറി ആണെങ്കിലും സാരിയിലൊക്കെ ഒരു സാരിക്ക് ചെയ്യുന്നതിന് മറ്റുള്ള സ്ഥലത്തിനേക്കാൾ ഞാൻ പത്തോ അമ്പത് രൂപയൊക്കെ കുറച്ച് കൊടുക്കുന്നത് ആണ് ഇഷ്ടം പോലെ കസ്റ്റമർ എനിക്ക് കിട്ടാറുണ്ട് കസ്റ്റമറ് സംതൃപ്തിയാണ് ഞാൻ ചെയ്യുന്നതിനകത്ത് ഒത്തിരി പ്രചോദനങ്ങൾ കിട്ടാറുണ്ട് പിന്നെ കട കുറച്ചൂകൂടി വലുതാക്കി എടുക്കണമെന്നുണ്ട് കുറച്ച് മെറ്റീരിയലൊക്കെ വാങ്ങി ഹസ്ബൻഡും അതിനകത്ത് സപ്പോർട്ട് ആണ് മക്കളും സപ്പോർട്ട് തന്നെയാണ് പിന്നെ എന്താണ് മൂന്ന് നാല് തൊഴിലാളികളുണ്ട് സ്റ്റിറ്റിച്ചിങിനും ഒക്കെ ആയിട്ട് അവരും എന്നോടൊപ്പം തന്നെ സഹകരിക്കാറുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്ന കസ്റ്റമറിനെ ആണെങ്കിലും നല്ല രീതി തന്നെയാണ് അവർ പെരുമാറുന്നത് അപ്പം അത് കാരണം കൂടുതൽ കസ്റ്റമറ് വരാനും അത് കാരണം അവരുടെ ബിഹേവിയറ് നമ്മുടെ ബിഹേവിയറ് കാരണം അവർ വരുന്നുണ്ട് പിന്നെ റേറ്റ് കുറവാണ് അതിൽ മെറ്റീരിയൽ ആണേലും നമ്മൾ പുറത്ത് പോയി എടുക്കുന്നത് ഇപ്പം നമ്മൾക്ക് ഒരുപാട് അതിനകത്ത് ഡിസ്കൗണ്ടും ഒക്കെ കിട്ടാറുണ്ട് ബൾക്ക് ആയിട്ടൊക്കെ സാധനം എടുക്കുമ്പം അതിനകത്ത് ഡിസ്കൗണ്ട് കിട്ടാറുണ്ട് പിന്നെ നമ്മൾ പുറത്ത് പോയാണ് എടുക്കുന്നത് ബാംഗ്ലൂർ നിന്നൊക്കെ ആവുമ്പോഴത്തേക്കും ബണ്ടിൽ കണക്ക് തുണി വരുമ്പം നമുക്ക് അതിനാത്തൊക്കെ ഒരുപാട് ലാഭം കിട്ടാറുണ്ട് അപ്പം നമ്മൾ കസ്റ്റമറിനും അതനുസരിച്ച് ലാഭത്തിലാണ് കൊടുക്കാറുള്ളത് പിന്നെ സ്റ്റിച്ചിംഗ് ചെയ്യുന്നതിനും ഒരുപാട് മറ്റുള്ള സ്ഥലത്തെ കണക്കുള്ള നമ്മൾ തുകയൊന്നും മേടിക്കാറില്ല ആളുകൾക്ക് അതു കാരണം നമ്മുടെ കടയിൽ കൊണ്ടു വന്നിട്ട് ചെയ്യാനായിട്ട് തയ്പ്പിക്കാനുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കസ്റ്റമറ് നല്ല സംതൃപ്തിയാണ്